എൻ്റെ ഒരു അഭിമാനമായ നേട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നല്ലൊരു ജോലി നേടണമെന്നായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം അതെനിക്ക് നല്ല രീതിയിലുള്ള ഒരു ജോലിയും കാര്യങ്ങളൊക്കെ നേടാൻ വേണ്ടി സാധിച്ചു കാരണം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചെറുപ്പം മുതലേ പഠിക്കുന്നത് എന്തിനെന്ന് വെച്ചാൽ നല്ലൊരു ജോലിയും ആ ജോലി കിട്ടിയിട്ട് ഇപ്പോൾ നല്ലൊരു നല്ലൊരു ശമ്പളം കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കുടുംബവും പിന്നെ നമ്മളും എപ്പോഴും സേഫ് ആയിട്ടിരിക്കണം അതുവേ അതിനുവേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതൽ ആയിട്ടും ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മൾ അച്ഛൻ അമ്മ പിന്നെ നമുക്ക് ഒരു കുട്ടി കുടുംബം അങ്ങനെയൊക്കെ ഉണ്ടാകുമല്ലോ അപ്പോൾ അതൊക്കെ നമ്മൾ നല്ല രീതിയിൽ സേഫ് ആക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതലായിട്ടും നമ്മൾ ചെയ്യുന്നത് അപ്പം എനിക്ക് നല്ല രീതിയിലുള്ള ഒരു ജോലി കിട്ടാൻ വേണ്ടി ഞാൻ ശ്രമിച്ചു അതെനിക്ക് കിട്ടി അതാണെൻ്റെ ഒരു വലിയൊരു നേട്ടം വേണമെങ്കിൽ എനിക്ക് പറയാൻ സാധിക്കും